ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിന് വളരെ അധികം പങ്കുണ്ട് അതായത് മതപരമായ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി നിർവഹിക്കുന്നു മറ്റു മതങ്ങൾ അതായത് മുസ്ലിം മതം മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോകും അതേപോലെ ക്രിസ്ത്യൻസും എല്ലാ ഞായറാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോകും പക്ഷേ ഹിന്ദുക്കൾ ആവട്ടെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഏതെങ്കിലും ദിവസങ്ങളില് അല്ലെങ്കിൽ അവർക്ക് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ അവർ അമ്പലങ്ങളിലേക്ക് പോവുകയുള്ളൂ എല്ലാ മതങ്ങളെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം മറ്റു മത നാം ഏതു മതത്തിൽ വിശ്വസിച്ചാലും മറ്റു മതങ്ങളുടെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ നാം കുറ്റപ്പെടുത്താൻ പാടില്ല ഇന്ത്യയിൽ ധാരാളം മതങ്ങളുണ്ട് അവ എല്ലാം ഏകത്വത്തോടെ വർത്തിക്കുന്നു അത് നില നിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ മറ്റു മതങ്ങൾ മതത്തിലെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അവരുടെ ആചാര രീതികളെ കുറിച്ചോ ഒന്നും കുറ്റപ്പെടുത്താനോ അവരുടേതായ കാര്യങ്ങൾ നമ്മൾ കൈകടത്താനോ പാടില്ല അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ എത്ര മതങ്ങളോ എത്ര മതത്തിൽ വിശ്വസിക്കുന്ന ആൾ ജനങ്ങൾ ഉണ്ടെങ്കിലും അവിടെ വർഗീയത ഉണ്ടാവുകയില്ല